കേരളത്തിൻ്റെ കൾച്ചർ മറ്റ് കൺട്രികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കൾച്ചറാണ് നമ്മൾ എല്ലാ മതത്തിലേയും വിശ്വസിച്ച് ഒരു പോലെ എല്ലാം മതത്തിനേയും സ്നേഹിക്കുന്ന ഒരു കൾച്ചർ ആണ് നമ്മളുടേത് സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവരവരുടെ മതത്തിലെ നമ്മൾ എല്ലാം എല്ലാതരത്തിലുള്ള ഒരു പരിഗണനയും നമ്മൾ എല്ലാ മതത്തിനും കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരു മതത്തിനെയും താഴ്ത്തിക്കെട്ടുകയോ മുകളിൽ ഉയർത്തുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മൾ എല്ലാവരും എല്ലാ രീതിയിലും തുല്യരാണ് പിന്നേ നമ്മളുടെ നല്ല നല്ല കൾച്ചറൽ പുതിയ തലമുറകളിലേക്ക് പകർന്ന് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളുടേത് ഇപ്പോള് നമ്മളുടെ ഭഗവത് ഗീതയിലെ ആണെങ്കിലും ഖുറാനിലെ ആണെങ്കിലും ബൈബിളിലാണെങ്കിലും നല്ല നല്ല വചനങ്ങൾ കുട്ടികളിലേക്ക് പകർന്ന് കൊടുത്ത് അവർക്ക് ഈശ്വരനിലേക്കുള്ള വിശ്വാസങ്ങൾ പകർത്തിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോള് നമ്മള് ഫോറിൻ കൺട്രീസിൽ ആണെങ്കിലും നമ്മുടെ കേരളീയ സംസ്കാരത്തെയാണ് അവര് ഇപ്പോള് അവര് തന്നെ ദത്തെടുത്തു കൊണ്ടിരിക്കുന്നത് അതായത് നമ്മടെ കൾച്ചർ അത്രയും നല്ലതായതുകൊണ്ടാണ് അവര് തന്നെ നമ്മളുടെ കൾച്ചറിനെ ദത്തെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറയുന്നത് അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ഒരു രീതിയാണ് നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് വരുന്നവരെ നമ്മൾ അത്രയും നല്ല രീതിയിൽ സൽകരിക്കുന്ന ഒരു നല്ലൊരു കൾച്ചർ ഉള്ള ഒരു രീതിയാണ് നമുക്കുള്ളത് അപ്പോള് അങ്ങനെ വരുമ്പോഴാണെങ്കിലും എല്ലാം കൊണ്ടും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വളരെ അടിയുറപ്പുള്ളതാണ് വളരെ പഴമയുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്